ആ കല്യാണം പോലുള്ളൊരു വിലയുള്ളൊരു വലിയതായിട്ടുള്ളൊരു ചടങ്ങില് നമ്മള് വെള്ളം ക്രമീകരിക്കാനായിട്ട് മെയിനായിട്ട് ചെയ്യുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വലിയൊരു സമോവർ പോലത്തെയൊരു ഇതിലാണ് വെള്ളം നിറച്ച് വയ്ക്കുന്നത് നമുക്ക് ചൂട് നമ്മള് കറക്റ്റായിട്ട് ക്രമീകരിച്ചിട്ടില്ലെങ്കില് നമുക്ക് വെള്ളം തണുത്ത വെള്ളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ വളരെ അധികം പാടുപെടും കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലവർക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മള് ചൂട് നല്ല രീതിയില് ക്രമീകരിക്കേണ്ട ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ ഇണ്ട് നമ്മള് ചൂട് നല്ല രീതില് ക്രമീകരിച്ചിട്ടില്ലെങ്കില് ചെലപ്പം നല്ല രീതിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ചൂട് ക്രമീകരിക്കാൻ വേണ്ടിട്ട് സമോവർ ആണ് നമ്മള് കൂടുതലായിട്ടും എടുക്കുന്നത് പിന്നെ എന്നു പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് നമ്മള് ഇപ്പോൾ ചായ അടക്കം എന്തെങ്കിലും ഒഴിച്ച് വെക്കാനൊക്കെ ആണെങ്കിലും സാമാബറ് തന്നെയാണ് എടുക്കാറ് പിന്നെ നമ്മള് കൈ കഴുകാനൊക്കെ യൂസെയ്യുന്നുണ്ടെങ്കിലും നമ്മള് വലിയൊരു അതായത് ഇപ്പോൾ കെമിക്കൽ ഒക്കെ കൊണ്ട് വരുന്ന പാത്രങ്ങളൊക്കെ ഇണ്ടാവൂലേ അതിലാണ് നമ്മള് കൂടുതലായിട്ടും വെള്ളം സ്റ്റോറ് ചെയ്ത് വെക്കാറ് അപ്പോൾ കൈ കഴുകാറ് ഒക്കെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് തന്നെയാണ് കൈ കഴുകാറുള്ളത് അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മള് വെള്ളം ക്രമീകരിച്ചു വയ്ക്കാറുള്ളത്